അങ്ങനെ ഉറക്കെ ചിരിപ്പിച്ച രീതിയിലുള്ളൊരു പുസ്തകവൊന്നും വായിച്ചിട്ടില്ല അങ്ങനെ നോവലുകൾലൊന്നും അങ്ങനെ ഹാസ്യപരമായിട്ടുള്ള ഒരിതായിട്ട് എനിക്ക് തോന്നീട്ടില്ല പിന്നെ പാത്തുമ്മയുടെ ആടിലെ കുറച്ച് ഡയലോഗ്കള് നമുക്ക് ചിരി വരാറുണ്ട് പിന്നെ നമുക്ക് ഇത് കാർട്ടൂൺ അങ്ങനുള്ള ഇത് കുട്ടികളുടെ ബുക്കുകളക്കെ വായിക്കുമ്പം നമുക്ക് ചിരി തോന്നാറുണ്ട് അതിലെ ബോബനും മോളിയും കഥാപാത്രങ്ങൾ ബോബനും മോളിയും എന്നുള്ള കഥാപാത്രം അതിലെ അവരുടെ ചേട്ടത്തി അവർക്ക് പറ്റുന്ന പ്രശ്നങ്ങൾ അതൊക്കെ നമ്മൾ നമ്മളെ ചിരിപ്പിക്കാറുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ചിത്രകഥകൾ കഥകൾ അതിലക്കെ നമ്മൾ ഒരുപാട് ചിരിക്കുന്നുണ്ട് അതു പോലെ സൂത്രനും ശേരുവും എന്നൊരു കഥാപാത്രം അത് ഒരു കുറുക്കൻ്റെയും ഒരു കടുവയുടെയും കഥ പറയുന്ന വളരെ ഫണ്ണിയായിട്ട് നമ്മുടെ മാലയാളം സോങ്ങുകളുമക്കെ ഉൾപ്പെടുത്തി വരുന്ന ചിത് ചിത്രകഥകൾ അത് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരേ സന്തോഷം തോന്നാറുണ്ട് പിന്നെ ചിരി തോന്നാറുണ്ട് ആ പിന്നെ അതുപോലെ ശിക്കാരി ശംഭുവിൻ്റെ കാര്യങ്ങൾ ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടി പ്രശംസ പിടിച്ച് പറ്റുന്ന ഒരു കഥാപാത്രം അങ്ങനെ കുട്ടികളുടെ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സാ ചിരിക്കാറുണ്ട് നമുക്ക് ചിലപ്പം ഉറക്കെ ചിരിക്കണമെന്ന് തോന്നും ചെറിയ ചെറിയ ഫലിതങ്ങളക്കെ ഉൾപ്പെടുത്തീട്ടുള്ള ബുക്കുകളൊക്കെ ആണത് അല്ലാതെ നമ്മൾ വായിക്കുന്ന നോവല്കളിൽ ആ രീതിയിലുള്ള ഒരൂ ചിരിക്കുന്നൊരു ഇത് ഉണ്ടായിട്ട് എനിക്ക് തോന്നീട്ടില്ല കുട്ടികളുടെ ചിത്രകഥകൾ ഒക്കെ വായിക്കുമ്പോൾ നമുക്കത് സന്തോഷം തോന്നാറുണ്ട് നമ്മൾ മനസ്സറിയാതെ ഇരുന്ന് ചിരിച്ചു പോകും കാരണം നമ്മൾ കുട്ടിക്കാലത്ത് വായിച്ച കാര്യങ്ങളക്കെത്തന്നെ ഇപ്പോഴുമത് കേൾക്കുന്നുണ്ടല്ലോ എന്നൊരിതിൽ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട് അല്ലാതെ ഒരു നോവൽലൂടെ നമുക്കൊരിക്കലും ഒരു സന്തോഷം കിട്ടീട്ടില്ല